അടുത്ത വീടുകളിൽ നിന്നും ചെടികൾ വാങ്ങാറുണ്ട് നമ്മുടെ തോട്ടത്തിലുള്ള ചെടികൾ ഉണ്ട് പിന്നെ ഫ്ലവർ ഷോയ്ക്ക് പൂപ്പൊലി പിന്നെ ചില ഫാമുകളിൽ അവിടെ നിന്നൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ ഓൺലൈനിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങുന്നതുണ്ട് പിന്നെ കുറേയൊക്കെ നാടൻ ചെടികൾ നമ്മുടെ വീടിന് പരിസരത്തൊക്കെ ഉണ്ടാവുന്നതുണ്ട് അതെല്ലാം നമ്മൾ അതിൻ്റേതായ ഭംഗിയിലും വൃത്തിയിലൊക്കെ ഉപയോഗി നട്ടു വളർത്തി പരിപാലിച്ചുകൊണ്ട് വരികയാണ് പരിചയമുള്ള വീടുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും ചെടിയുടെ കൊമ്പുകളും വിത്തുകളും ഒക്കെ ഓൺലൈനായിട്ട് നമുക്കൊക്കെ നോക്കിയാലും കുറേ ചെടികളിലെ തൈകളും വിത്തുകളും ഒക്കെ ലഭിക്കുന്നുണ്ട് അവയൊക്കെ നമ്മൾ ഓൺലൈനിലും വാങ്ങുന്നുണ്ട്